എൻ്റെ നീരീക്ഷണത്തിലൂടെ മുൻ കായികതാരങ്ങളെ കേരള സർക്കാർ പ്രധാനമായും പെൻഷൻ രീതിയിലൂടെയാണ് സഹായിക്കുന്നത് റിട്ടയർ ആയ താരങ്ങൾക്ക് കേരള സർക്കാർ പ്രധാനമായും പെൻഷൻ നൽകുന്നു പെൻഷനും അതേപോലെ തന്നെ എന്താണ് സർക്കാർ ആശുപത്രികൾ അവർക്ക് വേണ്ട ചികിത്സകൾ ലഭ്യമാക്കി കൊടുക്കുന്നു പക്ഷേ പ്രധാനമായും കായികതാരങ്ങൾ നേരിടുന്നത് പൈസയുടെ പ്രശ്നങ്ങളാണ് അവരുടെ കായിക കാലഘട്ടത്തിൽ അവർ നേടികൊണ്ടിരുന്ന അതേ തരത്തിലുള്ള പണം അവർക്ക് അത് കഴിഞ്ഞ് ഇറങ്ങുമ്പോൾ നേടാൻ പറ്റുന്നില്ല കാരണം അവർ പ്രധാനമായും അവരുടെ ജീവിതം ഓരോ മത്സരത്തിനുവേണ്ടി മാറ്റിവെച്ചതാണ് അതുകൊണ്ട് ഈ ലോകത്തിലുള്ള ഒരു ജോലി മറ്റ് ജോലികളിലൊന്നും പ്രധാനമായും അവർക്ക് ചെയ്യാൻ കഴിയുന്നില്ല അതുമല്ല അവരുടെ കായിക കാലഘട്ടത്തിൽ അവർ വളരെയേറെ കഷ്ടപ്പെടുന്നതുകൊണ്ടും വളരെ ഏറെ കായിക കായികാർത്ഥികൾ എന്ന പലരോഗങ്ങൾക്കും അടിമ അടിമകളാകുന്നു അവരുടെ ഗെയിമിന് വേണ്ടി ആയിരിക്കാം അവർ അത്രയും കഷ്ടപ്പെടുന്നത് പക്ഷേ അവരുടെ എന്താണ് അവരെ ഉപയോഗം കഴിയുമ്പം എന്താണ് ഉപയോഗം ഇല്ലാത്ത വസ്തുക്കളെ വലിച്ചെറിയുന്നത് പോലെ അവൾ അവർ വലിച്ചെറിയപ്പെടുന്നു എൻ്റെ നിരീക്ഷണത്തിൽ കേരളത്തിലെ എല്ലാ കായികതാരങ്ങളും കളെയും ജീവിതം കഷ്ടത്തിലാണ്